ഹലോ ഇത് അക്ഷയ സെൻ്റർ അല്ലേ ഞാൻ രണ്ട് ദിവസം മുന്നേ എൻ്റെ എയർടെൽ സിമ്മിൽ നിന്നും ഞാൻ ജിയോ സിമ്മിലേക്ക് മാറിയിരുന്നു ഫോൺ നമ്പർ പുതിയൊരു നമ്പറിലേക്ക് മാറിയിരുന്നു പഴയ നമ്പർ ഒഴിവാക്കി പക്ഷെ എൻ്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം കാണുന്നത് മറ്റൊരു നമ്പറാണ് അതായത് എൻ്റെ പഴയ നമ്പറാണ് പക്ഷെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നതും എനിക്ക് ആവശ്യാനുസരണം എൻ്റെ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നതും പുതിയ നമ്പറാണ് രണ്ടും ഒരേപോലെ ആവശ്യമില്ലെന്ന് കരുതിയാണ് പുതിയത് മാത്രം കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ഈ പുതിയ നമ്പറിലേക്ക് മാറിയപ്പോൾ ഞാൻ പഴയത് അപ്ഡേറ്റ് ചെയ്യാൻ മറന്നിരുന്നു അപ്പോൾ ഇനി എനിക്ക് എൻ്റെ ഔദ്യോഗിക രേഖകൾ ആധാർ അടക്കമുള്ള മറ്റ് ഔദ്യോഗിക രേഖകൾ എല്ലാം എൻ്റെ നമ്പർ മാറ്റിയത് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരാഴ്ച മുന്നേ എൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ അതിൽ നിന്നും ഞാൻ എൻ്റെ ഫോൺ നമ്പറിൻ്റെ കാര്യം മറന്നു അത് ഞാൻ ഒ ടി പിയും മറ്റും വരാനുള്ള ബുദ്ധിമുട്ടിൽ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ പുതിയ നമ്പർ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ മറന്ന കാര്യം എനിക്ക് ഞാൻ അറിയുന്നത് അപ്പോൾ ഇനി എനിക്ക് ഇത് പരിഹരിക്കാനുള്ള മാർഗ്ഗ നിർദ്ദേശങ്ങളും മറ്റും എനിക്ക് പറഞ്ഞ് തരാമോ